നമ്മൾ ഇപ്പോൾ പുസ്തകങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലൈബ്രറിയിലും കാര്യങ്ങളും ഉണ്ട് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് സ്റ്റാളുകളുണ്ട് ഇപ്പോൾ നമുക്ക് പിന്നെ വില കുറഞ്ഞ സെക്കൻഡ് ഹാൻഡ് രീതിയിലുള്ള ഇവിടെ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ കിട്ടും ഇപ്പോൾ നമ്മുടെ പാലക്കാട് നോക്കുകയാണ് പറയുമ്പോൾ മിഷൻ സ്കൂളിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു നല്ല കടയുണ്ട് അവിടെ നമുക്ക് ഏകദേശം നമുക്ക് പഠിക്കാനുള്ള ബുക്കുകൾ കഥാ ബുക്കുകൾ പിന്നെ ഈ എന്താ പറയുക റഫറൻസിനുള്ള ഗൈഡുകൾ അങ്ങനത്തെ ബുക്കുകളൊക്കെ കുറേ ആ പ്രദേശത്ത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് കടകളുണ്ട് അവിടെ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് അതായത് പകുതി വിലയ്ക്ക് ഉണ്ട് പിന്നെ തൂക്കി കൊടുക്കണ പരിപാടിയുണ്ട് പിന്നെ ചില ബുക്കുകൾ റെയർ ബുക്കുകൾ ആകുമ്പോൾ അതിനനുസരിച്ച് വില കൂടും പിന്നെ നമുക്ക് നോക്കുകയാണ് പറയുമ്പോൾ ഫ്രെഷ് ബുക്കുകളൊക്കെ നമുക്ക് അധികം ബുക്ക് സ്റ്റാളിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിനായിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ ബുക്ക് ഒക്കെ നമുക്ക് കിട്ടണം പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത് ഇവിടെ എവിടെയാണ് ഇപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ ആ അടുത്ത് കോയമ്പത്തൂർ പോകണ വഴിയിൽ ഉണ്ട് ആ എൻ എച്ച്ൻ്റെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജിനീയറിങ്ങിൻ്റെയും എം ബി ബി എസിൻ്റെയും അതുപോലത്തെ നമുക്ക് മറ്റേ പ്രൊഫഷണൽ ഇതിൻ്റെയൊക്കെ ബുക്കുകളൊക്കെ അവിടെ നല്ല വിലക്കുറവിൽ ഇപ്പോൾ ആയിരത്തിൻ്റെ ബുക്ക് ഒക്കെയാണ് പറഞ്ഞാൽ അതിനിപ്പോൾ ഇരുന്നൂറ് രൂപ ഇരുനൂറ്റി അൻപത് ഉറുപ്പിക പഴയ ബുക്ക് ആയിരിക്കും പക്ഷേ അത്രയും വിലക്കുറവിൽ ആ ബുക്ക് കിട്ടണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവിടെത്തന്നെ പോകേണ്ടി വരും അല്ലാണ്ട് പിന്നെ നമുക്ക് പോണത് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ കുന്നംകുളത്ത് പോയി കഴിഞ്ഞാൽ ബുക്കുകൾ കിട്ടും കുന്നംകുളത്ത് അത്യാവശ്യം ബുക്കിൻ്റെ നല്ലൊരു മാർക്കറ്റ് ഉള്ള സ്ഥലമാണ് അവിടെ പോയി കഴിഞ്ഞാലും ചെറിയ ബുക്കുകൾ ബുക്കുകൾ അത്ര വിലയും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിൽ നമുക്ക് അവിടെനിന്ന് കിട്ടാവുന്നതാണ്